മത്സ്യബന്ധനം മെച്ചപെട്ടതും എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരു തൊഴിലാക്കി മാറ്റുന്നതിന് സര്ക്കാരിന്റെ പിന്തുണ ആവശ്യമുള്ള കാര്യങ്ങള് എന്തൊക്കെയാണന്നു ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കില് മെയിനായിട്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടേതെന്ന് പറഞ്ഞാൽ ജീവന് പണയം വെച്ചിട്ടാണ് കടലിലും കാര്യങ്ങളിലും ഒക്കെ പോകുന്നത് ഏഹ് അത് നമ്മള് ചിന്തിക്കണം അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ സര്ക്കാരൊപ്പം അവര്ക്ക് അതായത് ആവശ്യമായിട്ടുള്ള അതായത് അവരുടെ കുടുംബത്തിനൊക്കെ ഫ്രീയായിട്ടുള്ള പഠിപ്പം പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെന്നുവെച്ചിട്ടുണ്ടെങ്കില് പിന്നെ അവര്ക്ക് അവരുടെ ജീവിതത്തിനുള്ള സുരക്ഷ അതായത് ഇന്ഷുറന്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണം കാരണമെന്നുവെച്ചിട്ടുണ്ടെങ്കില് ഇവര് ജീവന് മരണ പോരട്ടമാണ് നടത്തികൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സര്ക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ പിന്തുണയും ഇവര്ക്ക് ലഭിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം